എനിക്ക് ജോലിസ്ഥലത്ത് തെറ്റ് പറ്റിയ ഒരു സന്ദർഭത്തെ കുറിച്ച് പറയാമോന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു അംഗൻവാടില് ഞാൻ കുറച്ച് കാലം നിന്നിട്ടുണ്ടായിരുന്നു അതായതൊരു ആറു മാസം എനിക്ക് അംഗൻവാടില് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടീച്ചറായിട്ടായിരുന്നു നിന്നുകൊണ്ടിരുന്നത് അപ്പോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി ഒരു ദിവസം രണ്ടു ദിവസം ലീവായിരുന്നു അപ്പം കുറെ ഒരു പത്ത് കുട്ടികളോളം ഉണ്ടായിരുന്നു അപ്പോൾ അവരെയും നോക്കണം അവർക്കുള്ള ഫുഡും ഉണ്ടാക്കണം ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് അപ്പൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാന് കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ട് അതായത് ചെറുപയര് ആ ചെറുപയറായിരുന്നു കുട്ടികൾക്കന്ന് അപ്പോൾ എന്താ വെച്ചാ ചെറുപയറ് കുക്കറിൽ വെച്ച് വെള്ളമൊഴിച്ച് അതായത് പിന്നേ കുക്കറില് വെച്ച് കഴിഞ്ഞപ്പം പിന്നെ ഞാന് ആരോ അമൃതംപൊടി എന്തോ മേടിക്കാൻ വന്നപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനവരോട് വർത്താനം പറഞ്ഞു നിന്നുപോയി കുറച്ചുനേരം അപ്പൊന്നു വെച്ചിട്ടുണ്ടെങ്കില് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് കുക്കറില് ചെറുപയറിങ്ങനെ കരിഞ്ഞിരിക്കുന്നു അതായിരുന്നു എനിക്ക് ഏറ്റവും തെറ്റ് പറ്റിയ ഒരു സന്ദർഭംന്നു വെച്ചാ പിന്നെപ്പിന്നെ കൊഴപ്പുല്ല എന്നാലും ഞാന് അഡ്ജസ്റ്റ് ചെയ്തു കാരണം എങ്ങനെയോ ഭക്ഷണം കൊടുത്തായിരുന്നു പിന്നെനിക്ക് അങ്ങനൊരു തെറ്റ് പറ്റിയിട്ടില്ല പിന്നെ ഞാനത് നല്ലവണ്ണം ശ്രദ്ധിച്ചായിരുന്നു പിന്നെ എനിക്കതെന്നെയായിരുന്നു ശ്രദ്ധ